ഇപ്പോൾ ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതെല്ലാം കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ മഴക്കാല മുന്നറിയിപ്പുകളും കാര്യങ്ങളുമൊക്കെ നൽകുന്ന സമയത്തിന് മുൻപേ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ മറിച്ച് കളയുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കൊതുക് വന്ന് മുട്ടയിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്കത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾക്കത് വരുന്നതിന് മുന്നേ നമ്മൾക്കത് ചികിത്സിക്കാൻ പറ്റും വന്ന് കഴിഞ്ഞാൽപ്പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ചെയ്യണ്ട എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാവുക അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് ആശുപത്രികളിൽ തന്നെയാണ് ഇഷ്ടംപോലെ കൊതുകുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ വന്ന സാധനം നമുക്ക് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മെയിനായിട്ടും നമ്മുടെ ഒരു നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായി വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ മലേറിയ ഉണ്ട് മലേറിയയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ കക്കൂസ് ടാങ്കിലൊക്കെ മെയിനായിട്ട് കൊതുകും കാര്യങ്ങളൊക്കെ മുട്ട ഇട്ടിട്ട് പെരുകും അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലേറിയ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഹ്യുമൺ വേസ്റ്റിൽ നിന്നുണ്ടായി വരുന്നതായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ മലേറിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ കൊതുകുകളൊക്കെ വന്ന് നമ്മുടെ മേത്ത് വന്നിരിക്കുക നമ്മളത് നമ്മളെ മേത്ത് വന്നിരുന്ന് നമ്മളെ കടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൻ്റെ ഒരു വിഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ ദേഹത്തേക്ക് കയറി വരും അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിലുള്ള അസുഖവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കക്കൂസ് ടാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കുറച്ച് മണ്ണെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ചത്ത് പൊയ്ക്കോളും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുക